ഇപ്പോൾ മത്സ്യ ബന്ധനം എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കൂടുതലായിട്ട് നമ്മളങ്ങനെ വലിയ പ്രൊഫഷണലായിട്ട് ഒന്നും അങ്ങനെ മത്സ്യ ബന്ധനത്തിലേക്ക് എത്തിയിട്ടില്ല ഞാന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വല വീശി അങ്ങനെ മീനെ പിടിക്കുന്നു അത്രയും ഒന്നും നമുക്ക് വലിയ പിടി ഇല്ല നമ്മള് സാധാരണ ഈ കൈ തോടുകൾ പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് ചൂണ്ടയില് ഉപയോഗിച്ചൊക്കെ അത്യാവശ്യം എന്താ പറയുക ഒരു മീഡിയം സൈസിലുള്ള മീനുകളെക്കേണ് നമ്മള് പിടിച്ചിട്ടുള്ളു പിന്നെ കടലിലേക്കോക്കെ നമ്മള് കൂടുതലും എന്താ പറയുക ചൂണ്ട ഉപയോഗിച്ച് റോഡും ഇതൊക്കെ ഉപയോഗിച്ച് മീനുകളെ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഉൾ എന്താ പറയുക കടലിൻ്റെ നടു കടലിലൊന്നും പോയി മീനെ പിടിക്കാനുള്ള കഴിവുകളൊന്നും നമുക്ക് എത്തിയിട്ടില്ല അതിനൊക്കെ നമ്മുടെ എന്താ പറയുക കോഴിക്കോടുള്ളതിൽ മുക്കുവന്മാരായിട്ട് ഒരു പാട് ആൾക്കാരുണ്ട് കടൽ തൊഴിലാളികള് തന്നെ ഉണ്ട് അപ്പം അവർക്കേ അതിനുള്ളൊരു കഴിവൊള്ളു പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു മീനെയൊക്കെ പിടിച്ചിട്ട് ഹരം പിടിച്ചിട്ടാണ് നമ്മളിപ്പഴും മത്സ്യ ബന്ധനത്തിനൊക്കെ ഇറങ്ങുന്നത് ആ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മീനുകളെയൊക്കെ പിടിക്കാനൊക്കെ പോകുവാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് പോസ്സിബിൾ ആയിട്ടുള്ള കാര്യമില്ല നമ്മക്കതിനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് അങ്ങനെ തന്നെയാണ് ഇപ്പഴും മുമ്പോട്ട് പോകുന്നത്